കർഷകരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കർഷകരുടെ യഥാർത്ഥ ഒരു അവസ്ഥകളെ കുറിച്ച് പഠിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഭരണ സംവിധാനം അതുപോലെ തന്നെ കർഷകരെ അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില ഇടിച്ച് മാഫിയ സംഘങ്ങൾ എപ്പോഴും കർഷകരെ ദ്രോഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർഷകർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് വിപണയിൽ എത്തുമ്പോൾ ഇടനിലക്കാരൻ്റെ കയ്യിലേക്ക് ആണ് ആ കർഷകൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ലാഭം മുഴുവൻ പോകുന്നത് അങ്ങനെയാണ് കാലാകാലങ്ങൾ ആയിട്ട് ഇവിടെ സംഭവിച്ചോണ്ട് ഇരിക്കുന്നത് നമുക്ക് അറിയാം സർക്കാരിൻ്റെ ഇടപെടലുകൾ മൂലം വിപിസിക്കെ പോലുള്ള അല്ലെങ്കിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും കർഷകർക്ക് ലഭിക്കേണ്ട വില കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഉദാഹരണത്തിന് ഇപ്പോൾ പശു വളർത്തൽ ഒരു കാർഷിക മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗവാണ് പക്ഷേ ഇന്നത്തെ കൂലിച്ചെലവും ഇന്നത്തെ തീറ്റയുടെ ണ് വിലവർദ്ധനവും എല്ലാ കാരണം അതിൽ നിന്നും കാര്യമായ ലാഭം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുതാ അവിടെയും ഇടനിലക്കാർ ഈ പണം കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ കർഷകരുടെ പാല് വാങ്ങിച്ച് അവർ കൂടിയ വിലക്ക് വിൽക്കുകേം അല്ലെങ്കിൽ മറ്റ് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുകേം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കർഷകർക്ക് ഒരിക്കലും ഒന്നിനും സപ്പോർട്ട് അല്ലാതത്തിൻ്റെ പേരിൽ അല്ലെ കർഷകരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാത്തതിൻ്റെ പേരിൽ പലപ്പോഴും കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പരാതികൾ കർഷകർ ഉന്നയിക്കുന്ന പരാതികൾ ഒരിക്കലും പരിഹരിക്കപ്പെടാത്തത് അതിൻറ്റാത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട് വ്യക്തി താല്പര്യങ്ങൾ ഉണ്ട് പ്രാദേശികമായിട്ടുള്ള സംഘടനകൾ കർഷകർക്ക് വേണ്ടീട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി മുമ്പോട്ട് വന്നാൽ പോലും പലപ്പോഴും അതിൻറ്റാത്ത് ആ നടത്തിപ്പ്കാർ കർഷകരെ കൊള്ളയടിച്ചോണ്ട് പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് പല പ്രസ്ഥാനങ്ങളും നമ്മുടെ നാടുകളിൽ വളർന്ന് വന്നിട്ടൊണ്ട് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ട് കർഷകരെ സംരക്ഷിക്കാൻ എന്ന വ്യാജേനയാണ് എല്ലാവരും വരുന്നത് പക്ഷേ കർഷകർ അതിനകത്ത് ആത്മാർത്ഥമായി പോയി സഹകരിക്കും കൂടും കർഷകരുടെ ഉൽപ്പന്നം അവിടെ കൊണ്ടെവെക്കും സമയാ സമയങ്ങളിൽ അവരുടെ ഉൽപ്പന്നത്തിൻ്റെ വില കൊടുക്കുകയോ അല്ലെങ്കിൽ ന്യായമായ വില കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ കർഷകരെ വലയ്ക്കുന്നൊരു സമീപനമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കർഷകരുടെ പരാതികൾ പരിഹകരിക്കപ്പെടാത്തതിൻ്റെ കാരണങ്ങളും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും കർഷകൾ കർഷകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വേദനകൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന് നല്ല രീതിയിൽ ഉള്ള സംഭരണം വിപണനം ഇതൊക്കെ നടത്താൻ പറ്റുന്ന സത്യസന്ധമായിട്ട് നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ മൂല്യവർദ്ധിത വസ്തുക്കൾ വിപണിയിലെ വിപണനം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് പല പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വിൽക്കുന്ന സംവിധാനങ്ങൾ ഇങ്ങനെ ഒക്കെ വന്നെങ്കിൽ മാത്രമാണ് ഇത് പരിഹരിക്കാൻ ഒരു മാർഗ്ഗമായിട്ട് കാണുന്നുള്ളൂ അല്ലാത്തിടത്തോളം കാലം ഈ സംഭവങ്ങൾ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല കർഷകർ എപ്പോഴും കർഷകൻ എപ്പോഴും ബുദ്ധിമുട്ടുന്നു അവൻ്റെ കണ്ണീരിന് ഒരിക്കലും ഫലം കാണാറില്ല കരയുന്ന കുഞ്ഞിനെ പാൽ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ഇവർ കിടന്ന് കരഞ്ഞിട്ട് ആരുടെ മുമ്പിലാ കരയുക സമച്ചിത്തതയോടെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴും ഇനി ഭരണകർത്താക്കൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇടക്കാല ഇടനിലക്കാരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനെ പിന്തുണച്ചു കൊണ്ട് നിൽക്കുന്ന കർഷകരോടൊപ്പം എന്ന് സ്വയം അവകാശപ്പെട്ടു നിൽക്കുന്ന അത്ര മാലകളും കൂടി കർഷകരെ കൊള്ളയടിക്കുക ആണ് ഇതിനാണ് പരിഹാരം ഉണ്ടാവേണ്ടത്